ആദ്യം ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുകയും പിന്നീട് വായിച്ച് തുടങ്ങിയ ശേഷം ഒരുപാട് ഇഷ്ടപെടുകയും ചെയ്ത ഒരു നോവലാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ വേരുകൾ പുസ്തകത്തിൽ പുസ്തകത്തിൻ്റെ ആമുഖം വായിക്കുമ്പോഴും അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് പേജുകൾ മറിക്കുമ്പോഴും നമുക്ക് പുസ്തകത്തോട് ഒരു വിരസത അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകം ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഇഷ്ടമല്ലാതിരുന്നത് വളരെ അധികം ദൈന്യമായ ദൈന്യത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പോരടിച്ച് കൊണ്ട് ഐ എ എസ് നേടിയ ഒരാളാണ് ഈ നോവലിലെ കഥാനായകൻ രഘു പിന്നീട് അദ്ദേഹം നഗരത്തിലെത്തുകയും ഒരു അതി സമ്പന്നനായ വ്യാപാരിയുടെ മകൾ ഗീതയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഗീത അതിസമ്പന്നതയുടെ നടുവിൽ വളർന്നത് കൊണ്ട് തന്നെ അവർക്ക് ആഡംബര ജീവിതമായിരുന്നു ഇഷ്ടം എപ്പോഴും ഗെയിംസ് കളിക്കുകയും കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരാളായിരുന്നു എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായൊരു കഥാപാത്രമായിരുന്നു രഘുവിൻ്റേത് ഇവർ തമ്മിലുള്ളൊരു വൈരുധ്യവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു സാധാരണ നാഗരിക ജീവിതം നയിക്കുന്നൊരു കുടുംബത്തിൻ്റെ കഥയും കഥയാണ് ആദ്യ ഭാഗത്ത് കാണിക്കുന്നത് അതു കൊണ്ട് തന്നെ എനിക്ക് ആദ്യ ഭാഗത്ത് ഈ നോവൽ ഒരു വിരസത അനുഭവപ്പെട്ടു എന്നാൽ രഘു പിന്നീട് തൻ്റെ ഗ്രാമത്തിലെ തറവാട് വീടും മറ്റ് സ്വത്ത് വകകളും ഒക്കെ വിൽക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ് അവിടുന്ന് അങ്ങോട്ട് രഘുവിൻ്റെ യാത്ര നമ്മൾ വായനക്കാരുടേത് കൂടി ആയി മാറുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള രഘുവിൻ്റെ യാത്രയാണ് ഈ പുസ്തകത്തെ ഇഷ്ടപ്പെടാൻ എൻ്റെ ഇഷ്ടപ്പെടാനുള്ള എനിക്ക് എൻ്റെ മനസ്സ് മാറാനുള്ള ഒരു കാരണം രഘു തൻ്റെ കുട്ടിക്കാലവും ഗ്രാമത്തിലെ സംഭവ വികാസങ്ങളും എല്ലാം ഓർത്ത് കൊണ്ട് ഗ്രാമത്തിലേക്ക് യാത്ര പോവുകയാണ് കുട്ടിക്കാലത്തെ ഓരോ സംഭവങ്ങളും നോവലിൽ പറയുന്ന രീതി എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഒരു ശാന്തതയും അതിൻ്റെ നൈർമല്യവും എല്ലാം നമുക്കും ഓരോ നിമിഷം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് നോവൽ ഈ കഥയുടെ അന്ത്യത്തിൽ രഘു ഗ്രാമ സ്മരണകൾ ഗ്രാമീണമായ സ്മരണകളിൽ മുഴുകി കൊണ്ട് ഈ തൻ്റെ തറവാടും വീടും അവിടുത്തെ സ്വത്ത് വകകളും എല്ലാം തനിക്കെന്നും വേണം കുടുംബ ബന്ധങ്ങളെല്ലാം എന്നും നില നിൽക്കണം എന്നാഗ്രഹിക്കുകയും എന്നാഗ്രഹിക്കുകയും തൻ്റെ സ്വത്ത് വിൽക്കാനുള്ള തീരുമാനം മാറ്റുകയും ചെയ്യുന്നു വളരെ നമ്മൾ വായനക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സിലൂടെയാണ് ഈ നോവൽ കടന്ന് പോകുന്നത് അതു കൊണ്ട് തന്നെ എനിക്ക് ഈ വേരുകൾ ഇത്തരത്തിൽ ആദ്യം ഇഷ്ടപ്പെടാതെ പിന്നീട് വായിച്ച ശേഷം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഇത് പോലെ പല പുസ്തകങ്ങളും ആദ്യം ഒരു ലാഗടിച്ചത് കൊണ്ട് ഇഷ്ടപെടാതിരിക്കുകയും പിന്നീട് വളരെ അധികം മനസ്സിൽ തട്ടുകയും ചെയ്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട് എം മുകുന്ദൻ്റെ ഡൽഹി എന്ന പുസ്തകം ഇത്തരത്തിലുള്ള ഒന്നാണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകവും ഞാൻ വളരെ അധികം ഇഷ്ടപ്പെട്ട് വായിച്ച ശേഷം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്